ഹലോ ലൈബ്രേറിയൻ അല്ലേ ആ ഞാൻ ഒരു ബുക്കിൻ്റെ എൻക്വറിക്ക് വേണ്ടിയിട്ടായിരുന്നേ ചെമ്മീന് ചെമ്മീൻ

നാളെത്തേക്ക് കിട്ടും അല്ലേ നാളെ എപ്പോഴത്തേക്ക് കിട്ടുമായിരിക്കും നാളെ കഴിഞ്ഞ് ആ ഓക്കെ നാളെ കഴിഞ്ഞ് എപ്പഴത്തേക്ക് കിട്ടും അതെ അല്ലേ അപ്പോൾ ഞാൻ കറക്റ്റ് അവിടെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അന്ന് വരുമ്പത്തേക്കും മെമ്പർഷിപ്പ് എടുത്താൽ മതിയോ അപ്പം എത്ര ദിവസത്തേക്കാ ബുക്ക് റിട്ടേൺ ചെയ്യേണ്ട ടൈം

ഓക്കെ അ ഓ ഓക്കെ ഓക്കെ അപ്പം നാളെ കഴിഞ്ഞത്തേക്ക് വന്നാൽ മതിയല്ലേ ഓക്കെ ശരി താങ്ക് യു